ഹലോ ആ ഞാൻ ആ അതേലോ

ആ എന്തായിരുന്നു എന്നെ വിളിച്ചത് മുകളിലത്തെ നിലയിൽ ഇരുന്നാണോ ഫുഡ് കഴിച്ചത് അതെയോ പിന്നെ ബില്ല് പേ ചെയ്ത സ്ഥലത്താണോ

ആ നോക്കിയിട്ട് ഞാൻ പറയാവേ പിന്നെ അവിടുത്തെ എന്നാൽ വെയ്റ്ററോട് പറയാവോ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ അറിയിക്കാം കേട്ടോ

അപ്പോൾ ഞാൻ അറിയിച്ച് അവരോട് പറഞ്ഞു വെച്ചിട്ട് എന്നാ അല്ലെങ്കിൽ ഞാൻ പോയി നോക്കിയിട്ട് അറിയിക്കാം ഏ എന്നാ അപ്പോൾ ഈ ഫുഡ് പിന്നെ കഴിച്ചിട്ട് അതിന് ആ എന്നാ ബായ്ഗിനകത്ത് എന്തെങ്കിലും എന്നാ പ്രധാനപ്പെട്ട രേഖകളോ വല്ലതും ഉണ്ടായിരുന്നോ ആധാർകാർഡൊക്കെ ഉണ്ടല്ലേ ആ ഞാനൊന്ന് സി സി ടിവിയിലും കൂടൊന്ന് നോക്കട്ടെ എന്നാ അവിടെ ഉണ്ടോ എന്ന് ഉള്ളത് അവിടെ ഉണ്ടോ അല്ലെൽ ആരെ ആരെങ്കിലും കൊണ്ടുപോയോന്ന് നോക്കിയേച്ചിട്ട് പറയാം കേട്ടോ ആ വെയ്റ്റർ വന്ന് അറിയിച്ചിട്ടുണ്ട് അവിടെ ബാഗ് കണ്ടില്ല ബാഗ് അവിടെ ഇല്ലാന്നാണ് അറിയിച്ചത് ഇനി സി സി ടിവിയിലും കൂടെ ഞാൻ നോക്കാം അവിടെ എന്തെങ്കിലും ആരുടെ എങ്കിലും ബാഗ് മറന്ന് വെച്ചത് കൊണ്ട് എന്നാ എൻക്വയറിയിൽ എങ്ങാനും കൊണ്ട് വന്ന് ആരേലും ഏൽപ്പിച്ചിട്ടുണ്ടോന്ന് ചോദിക്കാം കേട്ടോ എൻക്വയറിയിൽ അവിടെ കൊടുത്ത് കഴിഞ്ഞാൽ സി സി ടിവിയിലും കാണുന്നില്ല ആരും എടുത്തോണ്ട് പോരുന്നതായിട്ട് കാണുന്നില്ല നമുക്ക് ഇനി മാഡം വേറെ എവിടെയേലും ആയിരുന്നോ ബാഗിപ്പോൾ ഇവിടെ തന്നെ ആണെന്ന് ഉറപ്പുണ്ടോ അതെയോ അയ്യോ ഇനി ഇങ്ങോട്ട് വന്ന ബസ്സിലോ എവിടേലും വെച്ച് മറന്നതായിരിക്കുമോ

ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏൽപ്പിക്കാം പക്ഷെ സി സി ടിവിയിലും എന്നാ കാണുന്നില്ല ആരും ആര് ആരും എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും കാണുന്നില്ല പക്ഷെ മാം ഇരുന്ന് കഴിച്ച ഇടത്തും ഈ ബാഗ് ഞങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അവിടെ കാണുന്നില്ല അപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ പോകുന്ന വഴിയിൽ എവിടെയേലും മിസ്സായതാകാന്നാണ് സാധ്യത കാരണം പോകുന്ന ആ അങ്ങനെയാണെങ്കിൽ ഒന്ന് പിന്നെ സ്റ്റേഷനിലൊരു പരാതി കൊടുക്കുന്നത് നല്ലതാണേ ഇങ്ങനെ ബാഗ് മിസ്സായെന്നുള്ളത് പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ നോക്കാം ഇനി ആരെങ്കിലും എവിടേലും മ എടുത്ത് മാറ്റി വെച്ചതാണോ ഒന്ന് ഒന്നുംകൂടെ അന്വേഷിക്കാം പിന്നേ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈ ഉച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ അറിയിച്ചേക്കാം കേട്ടോ ഈ സാധനം ലഭിച്ചെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അറിയിച്ചേക്കാം ഇല്ലെങ്കിൽ ഒന്ന് പൊ സ്റ്റേഷനിൽ ഒന്ന് പരാതി പെട്ട് പരാതി നൽകുന്നത് നല്ലതാണ് കേട്ടോ ആ എന്നാൽ ഓക്കേ ആ